ഞങ്ങൾ ഞങ്ങളുടെ അതിഥികൾക്കായി അതിഥികളെ സൽക്കരിക്കാനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അവരെ സന്തോഷത്തോടും സ്നേഹപൂർവ്വവുമാണ് ഓരോ അതിഥികളെയും ഞങ്ങൾ സ്വീകരിക്കാറ് കൂടാതെ അവർക്ക് വരുമ്പോൾ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല അതിഥികളെ വളരെ സന്തോഷ പൂർവ്വം തന്നെയാണ് വന്നു കഴിയുന്നത് മുതൽ അവർ പോകുന്നത് വരെയും അവരെ ഞങ്ങൾ സ്വീകരിക്കാറുള്ളത് കുടാതെ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയും അവർക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കി നൽകുകയുമൊക്കെ ചെയ്യാറുണ്ട് അവരുമായി വിനോദത്തിൽ ഏർപ്പെടുകയും അവരെ മാക്സിമം എൻജോയ് ചെയ്യിപ്പിക്കാറ് ഉണ്ട് കൂടാതെ മറ്റുള്ളവർക്കായി പാചകം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുറെ വിഭവങ്ങളുണ്ട് അത് എന്തൊക്കെ എന്നാൽ കേക്ക് കേക്ക് സ്വീറ്റ്സ് മറ്റ് സ്നാക്സ് തുടങ്ങിയ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ എനിക്ക് ഏറെ ഇഷ്ടമാണ്